ഓ പലതരത്തിലുള്ള ബാങ്കുകളൊക്കെ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിൽ ആണെങ്കിലും പലതരത്തിലുള്ള ബാങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അവിടെയൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ചിലപ്പം ലോൺ എടുത്തിട്ട് ചിലപ്പോൾ അടവ് അടക്കാൻ പറ്റാണ്ട് ഇപ്പം അവിടെയൊക്കെ പലിശ രഹിത വായ്പ എന്നൊക്കെ പറയുന്ന കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട് പക്ഷേ അവരെന്നാലും അതിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള പലിശയും കാര്യങ്ങളൊക്കെ ഈടാക്കും ചിലപ്പം പതിനൊന്ന് പന്ത്രണ്ട് ശതമാനമൊക്കെ ചിലപ്പം ഇരുപ്പത്തിഅഞ്ച് ശതമാനം വരെ ഈടാക്കുന്ന പലരീതിയിലുള്ള ബാങ്കുകളൊക്കെ ഉണ്ട് ഇപ്പം നാഷണലൈസ്ഡ് ബാങ്കുകൾ ആണെങ്കിലും നല്ല രീതിയിലുള്ള പലിശയും കാര്യങ്ങളൊക്കെ ഈടാക്കുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുക്ക് വേറെ ലോണും കാര്യങ്ങളൊക്കെ കിട്ടണങ്കിൽ കുറച്ച് എളുപ്പമായിട്ട് ഇത് ഉണ്ടാവുള്ളൂ ഇപ്പം പഞ്ചാബ് നാഷണൽ ബാങ്കിലാണെങ്കിലും നാല് ശതമാനം പലിശാന് പറഞ്ഞേച്ചാല് അവര് ഏഴ് ശതമാനം പലിശയൊക്കെ എടുക്കും അപ്പം നമ്മള് അടയ്ക്കുന്നേന് അനുസരിച്ചാണ് അവര് പലിശ എടുക്കുന്നത് അപ്പം ആ പലിശയിൽ നിന്ന് ചിലപ്പം ഏഴ് ശതമാനം ആണെങ്കില് അതിൻ്റെ ബാക്കി മൂന്ന് ശതമാനമാണ് നമ്മുക്ക് ഇട്ടു തരിക അപ്പം മൂന്ന് ശതമാനം നമ്മുടെ അക്കൗണ്ടിലോട്ട് കയറും അങ്ങനെയൊക്കെയാണ് വായ്പയും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇതൊക്കെ നമ്മൾക്ക് നെറ്റ് വഴിയും പത്രങ്ങളൊക്കെ വഴി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും ഓരോ കാര്യങ്ങൾ ഇപ്പം ഒരു ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ചില സമയങ്ങളില് ഇതിലൊക്കെ ഇട്ടുവെക്കാറുണ്ട്